അതെ അതെ അതെ എന്താണ് പറഞ്ഞോളൂ അഡ്മിഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ആയതേ ഉള്ളൂ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഒന്ന് അന്വേഷിച്ചു വന്നോളൂ അഡ്മിഷൻ ഫീസ് വരുന്നത് ഫൈവ് തൗസൻഡ് ആണ് സ്റ്റാർട്ടിങ് അതെ അതെ ആ ഉണ്ട് ഉണ്ട്

അതെ അതെ ഡൊണേഷൻ തന്നെയാണ് പറഞ്ഞത് ഫൈവ് തൗസൻഡ് ആ ഫീസ് ടോട്ടൽ വരുന്നത് ഫിഫ്റ്റീ തൗസൻഡ് ആണ് അതെ സ്കൂൾ യൂണിഫോമൊക്കെ സ്കൂൾ തന്നെ കിട്ടുന്നുണ്ട് പിന്നെ ബുധനാഴ്ച നിങ്ങൾ മുമ്പൊക്കെ കളർ ഡ്രസ്സ് ആയിരുന്നല്ലോ ഇപ്പളപ്പോ വേറെ ഒരു മോഡൽ യൂണിഫോം വന്നിട്ടുണ്ട് ആ അതെ ആ അതെ അതെ പക്ഷെ നിങ്ങൾ എക്സ്ട്രാ ഫീസ് കൊടുക്കേണ്ടി വരും ആ ഓക്കെ ഫുഡ്ഡ് ഒക്കെ ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് കൊണ്ടുവരേണ്ടതാണ് എങ്കിൽ കൊണ്ടു വന്നോളൂ കാരണം ചില കുട്ടികൾ സ്കൂളിലെ ഫുഡ് കഴിക്കാതെ കഴിക്കുന്നില്ലല്ലോ ഇപ്പോൾ നിങ്ങളുടേതായ നിങ്ങൾ ഇതുണ്ടെങ്കിൽ കൊണ്ടു വരാവുന്നതാണ് പക്ഷെ സ്റ്റീലിൻ്റെ പാത്രത്തിലെ കൊണ്ടുവരാൻ പാടുള്ളൂ പ്ലാസ്റ്റിക് ഒന്നും അവൈലബിൾ അല്ല സോറി അലോവ്ഡ് അല്ല ആ ഓക്കെ വാൻ ഒക്കെ ഉണ്ട് കാരണം ഡിസ്റ്റൻസ് അനുസരിച്ചാണ് സ്കൂളിൻ്റെ അറൗണ്ട് ആണെങ്കിൽ ഉണ്ട് അതെ അതെ വാൻ ഫീസ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് ആണ് സ്റ്റാർട്ടിങ് അപ്പോൾ മീറ്റർ അനുസരിച്ചിട്ടാണ്

ശനിയാഴ്ച ഉണ്ട് വന്നോളൂ കുഴപ്പമില്ല ആ ഓക്കെ ശരി ശരി